ഹലോ ഫ്ലവർ ഷോപ്പല്ലേ മലപ്പുറത്തുള്ളത് ഞാന് ഒരു

ആ ഞാനൊരു തൈ മേടിക്കാനാണ് ഓ നമ്മള് മേലാറ്റൂരാണ്

ഓ ഓ ഓ ആ നമുക്ക് ബഡ് ചെയ്തത് ബഡ് ചെയ്ത തരത്തിലുള്ളത് ആ അപ്പോള് ഞാന് ബഡ്ജറ്റ് എത്രയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധനം നല്ലതായാല് മതി ആ ആ ഇല്ല അതൊന്ന് പറഞ്ഞുതരുമോ എവിടെയാണ് കുഴിച്ചിടേണ്ടതെന്നൊക്കെ വെയില് നല്ലവണ്ണം കൊള്ളേണ്ടിവരുമോയെന്നൊക്കെ ബഡ് ചെയ്തതല്ലേ ആ ആ ആ ഓക്കെ ആ നിങ്ങളുടെ കടയുടെ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് വാട്ട്സപ്പ് ചെയ്തേക്കൂ കേട്ടോ ഈ നമ്പറില് തന്നെയാണ് വാട്സപ്പ് ഉള്ളത് പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത് വേറെ ഏതാണ് ഏതൊക്കെയാണുള്ളത് നല്ല എഫക്റ്റീവ് ആയ നല്ല പൂക്കളൊക്കെയുള്ളതുണ്ടോ

ആ വളമൊക്കെ അവിടെത്തന്നെ കിട്ടും ആ ആ ആ ആ ഈ ബഡ്ഡിങ്ങിൻ്റേത് എത്ര കാലം നില്ക്കേണ്ടിവരും ആ ആ പിന്നെ നമ്മളിപ്പോള് ഈ ഉണങ്ങിയാലൊക്കെ എന്താണ് ചെയ്യുകയാവോ ആ ആ ആ ഓക്കെ ഓക്കെ എന്നാല് നാളെ ഞാന് കടയിലേക്ക് ഏതായാലും വരാം നിങ്ങള് നിങ്ങളുടെ കടയുടെ ലൊക്കേഷൻ ഒന്നിട്ടുതരുമോ ഇങ്ങോട്ട് എന്നാല് ഓക്കെ താങ്ക് യൂ